ഞാനൊരു ആശംസാകാർഡ് ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു

എല്ലാവരും ചെയ്യുന്നതന്നെയായിരിക്കും ഇത് പക്ഷെ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കാരണം എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാനെൻ്റെ സമയം ചിലവഴിച്ച് ഞാനുണ്ടാക്കിയ ഒരു കാർഡ് മറ്റുള്ളവർക്ക് കൊടുത്ത അവരത് തുറന്നു നോക്കി ആഹ് എന്തായിത് മനോഹരമായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസിലുണ്ടാകുന്ന സന്തോഷം എനിക്ക് കിട്ടുന്നൊരു അംഗീകാരം അത് നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ജീവിതത്തില് മറ്റുള്ളവരുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞ ആൾക്കാര് ഒത്തിരിയുണ്ടാവും അല്ലേ പ്രത്യേകിച്ചിങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ സമ്മാനങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കാർഡുണ്ടാക്കുന്നത് അല്ലെങ്കില് അത് പെയിന്റ് ചെയ്ത് എഴുതി കൊടുക്കുന്നത് ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ല പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമേ അല്ല പക്ഷെ നമുക്ക് അതായത് എനിക്ക് ഇത് എന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു ബന്ധമുള്ളൊരു സംഗതിയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് എനിക്കോരോ കാര്യങ്ങള് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം എനിക്ക് പ്രതിഫലമല്ല പൈസ അല്ല ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മുഖത്തെ സന്തോഷം അവരുടെ ആ ഒരു പുഞ്ചിരി അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം വരും കാരണം ഞാൻ ഏതാണ്ട് എന്തോ നേടിയെടുത്ത ഏതോ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോവും എനിക്ക് ഭയങ്കര അംഗീകാരം കിട്ടുന്നതുപോലെ ആയിരിക്കും ആഹ് ഞാനൊരു വലിയ സംഭവമാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരും അഹങ്കാരമല്ല പക്ഷെ എന്തോ ഒരു പ്രത്യേകമായൊരു അനുഭൂതി എനിക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു പ്രത്യേക മാനസിക സന്തോഷം